എനിക്ക് തോട്ടകൃഷി തുടങ്ങാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഞാന് ആദ്യം പറയുവാണേല് പറയും നമ്മുടെ മഞ്ജൂ വാര്യരുടെ ഹൗ ഓള്ഡ് ആര് യൂ എന്ന് പറയുന്ന സിനിമ ആ സിനിമ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഞാന് അങ്ങനെ ചിന്തിക്കാന് തുടങ്ങിയത് അപ്പോൾ ഞാന് ആദ്യമൊക്കെ ചെറിയ ചെറിയ എന്താ ചെറിയ പച്ചമുളക് അല്ലേല് തക്കാളി ഇഞ്ചി അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങള് ഇങ്ങനെ ഗ്രോ ബാഗില് സീഡോക്കെ ഇട്ട് എന്നിട്ട് വിത്തൊക്കെ മുളപ്പിച്ച് ഇങ്ങനെ ചെയ്തു ആദ്യം കുറച്ച് എന്താ വളര്ന്നൊന്നുമില്ല പിന്നെ പിന്നെ നന്നായിട്ട് പ്രോപ്പറായിട്ട് നോക്കാന് തുടങ്ങിയപ്പോൾ നല്ല രീതിയില് അത് വളര്ന്നു അതിൽ പൂ വന്നു കാ വന്നു പിന്നെ അത് ഫലങ്ങളൊക്കെ ആകുവാണേങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷായി ഇപ്പോൾ തക്കാളിയൊക്കെയാണേലും ആദ്യം ചെറുത് ഒരു ഗ്രീന് കളറാണ് പിന്നെ അത് കളറ് മാറി മാറി മാറി നമ്മള് കടയില് നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടില് അത് ഇങ്ങനെ വന്നപ്പം എനിക്ക് ഭയങ്കര സന്തോഷായി പിന്നെ നമ്മള് കൂടുതലും ഈ ജൈവ വളങ്ങളൊക്കെയാണ് ഉപയോഗിച്ചത് എനിക്ക് ഒരു പ്രചോദനം കിട്ടിയത് ആ സിനിമയില് നിന്നാണെന്ന് ഞാന് പറയും അതോടൊപ്പം തന്നെ എന്റെ അപ്പച്ചന് വലിയ അപ്പച്ചന് ഒരു കൃഷിക്കാരനാണ് ഞങ്ങൾക്ക് കൃഷിക്കാരനാണ് അപ്പം ആ സമയത്ത് ഞാന് അപ്പച്ചന്റെ കൂട്ടത്തില് കുഞ്ഞിൽ ആയിരുന്ന സമയത്താണേലും ഈ കപ്പക്കാലായില് പോകും അതുപോലെ തന്നെ വാഴ വാഴകൃഷി കുല വെട്ടാനായിട്ട് വെള്ളരിയുടെ കൃഷി അതൊക്കെയുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാന് അപ്പച്ചന്റെ കൂടത്തില് ഇങ്ങനെ കാലായിലും നമ്മുടെ തോട്ടത്തിലുമൊക്കെ പോകുമായിരുന്നു അപ്പം എനിക്ക് ആ ഒരു സമയത്ത് ഇൻസ്പരേഷന് ഉണ്ടായിരുന്നു പക്ഷെ അപ്പം നമുക്ക് പഠനം കാര്യങ്ങളൊക്കെയായതുകൊണ്ട് നമുക്ക് അത്ര ചെയ്യാന് പറ്റുന്നില്ലായിരുന്നു അതിനു ശേഷം ഈ സിനിമയും കൂടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര ഇങ്ങനെ ചെയ്താലോ എന്നുള്ള ഒരു തോന്നല് തോന്നി അതുപോലെ തന്നെ പുറത്ത് നിന്നുള്ള വിഷം ആയിട്ടുള്ള വിഷം അടിച്ച വെജിറ്റബിള്സ് വാങ്ങിച്ച് കഴിക്കണ്ട നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൃഷി ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികള് നമുക്ക് കിട്ടുവല്ലോ എന്ന് ഓര്ത്ത് തോന്നൽ തോന്നി അങ്ങനെ ഞാൻ ഈ കൃഷി തോട്ട കൃഷി ആരംഭിച്ചത് അപ്പം ഒന്ന് മെയിന് റീസണ് എന്ന് പറയുന്നത് ഒന്ന് ആ സിനിമ കണ്ടു പിന്നെ എന്റെ അപ്പച്ചനും കാരണമാണ് ഇവരാണ് എനിക്ക് പ്രചോദനം ആയത്